വയനാട് ജില്ലയിൽ നല്ല അത്യാവശ്യം അടിപൊളിയായിട്ട് മഴ പെയ്യുന്നുണ്ട് അതുപോലെത്തെന്നെ എന്താ പറയുക വൈകിയാണ് മഴ പെയ്തത് ജൂണിൽ പെയ്യേണ്ട മഴയാണ് ഇപ്പോൾ ജൂലൈയിലാണ് പെയ്യുന്നത് ജൂലൈ ഒരു പകുതിയോടെയാണ് മഴ പിടിച്ചതെന്നു വേണമെങ്കിൽ പറയാം

അത്യാവശ്യം നല്ല തണുപ്പുണ്ട് തണുപ്പ് അനുഭവിക്കുന്നുണ്ട് അധികമായിട്ടും നല്ല കാറ്റ് ഉള്ളതുകൊണ്ടുതന്നെ നല്ല തണുപ്പുണ്ട് പിന്നെ എന്താ പറയുക കാലാവസ്ഥയിൽ ഇങ്ങനെ വരുന്ന മാറ്റങ്ങൾ കുറച്ച് പ്രശ്നമായിട്ടുണ്ട് കാരണം കാര്ഷികത്തിൽ എന്താ പറയുക കാപ്പി ആയിക്കോട്ടെ മുളക് ആയിക്കോട്ടേ എനിക്ക് കുറച്ച് മാറ്റമുണ്ട് കാരണം ഇതുവരെ തിരി ഇട്ടിട്ടുണ്ടായില്ല ഇപ്പോഴാണ് മഴ ഒന്ന് പിടിച്ചത് അതുപോലെത്തന്നെ ഉറവയുണ്ട് ഉറവ വരണമെങ്കിൽ ഇങ്ങനെ മഴയും കാറ്റും വന്നാല് മാത്രമേ ഉറവ ഉണ്ടാവുള്ളൂ വെള്ളത്തിനൊക്കെ പ്രശ്നം ഉണ്ടാവും പൊയ്ക്കഴിഞ്ഞ് ഇപ്പം വേനല്ക്കാലം വരുമ്പോഴെ ആണ് നമുക്ക് വെള്ളത്തിന് ഒക്കെ പ്രശ്നം ഉണ്ടാവുന്നത് താപനില എന്താ പറയുക പത്ത് ഡിഗ്രിയിൽ ആയിട്ട് കുറയുന്നുണ്ട് പിന്നെ മൺസൂണ് കാലാവസ്ഥയാണ് ശരാശരി മഴ എകദേശം മൂവായിരം മില്ലിലിറ്റർ വരെ പെയ്തിട്ടുണ്ട് ഇനിയും പെയ്യാനാണ് സാധ്യത ഉള്ളത് പിന്നെ വയനാട് ജില്ലയില് ഇപ്പോഴാണ് ഒന്ന് മഴ പിടിച്ചുവന്നതെന്ന് പറയാം ഇതുവരെ ലീവ് ഒന്നും കിട്ടിയിട്ടില്ല പിള്ളേര്ക്ക് അങ്ങെനെയുള്ള മഴ ഒന്നും പെയ്തിട്ടുണ്ടായില്ല ഇപ്പം എന്നു അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുള്ളായിട്ട് എന്ന് ഇങ്ങ് പെയ്യുന്നില്ല എന്നാൽപ്പോലും ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് ഇടവിട്ട് ഒരു ചെറിയൊരു വെയിൽ വന്നാൽപ്പോലും ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ടിട്ട് മഴ പെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല രിതിയിലുള്ള മഴ ഇപ്പോൾ പിടിച്ചിട്ടുണ്ട് എന്താ പറയുക അതുപോലെ തന്നെ പുഴയില് ഒക്കെ വെള്ളം കയറിയിട്ട് പുഴയില് അത്യാവശ്യം വെള്ളം കയറി ചെറിയ ചെറിയ മീനെല്ലാം വയലിലേയ്ക്ക് കയറിയിട്ടുണ്ട് എങ്കിൽപ്പോലും അത്ര രീതിയിലുള്ള മഴ ഇവിടെ ലഭിച്ചിട്ടില്ല എങ്കിലും നല്ല അത്യാവശ്യം നല്ല തണുപ്പുള്ള കാലാവസ്ഥ ആണ് ഇപ്പോൾ ഉള്ളത്